അതിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഭക്ഷണത്തെക്കുറിച്ച് തന്നെ പറയാൻ സാധിക്കില്ല കാരണം പറയുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾക്ക് ഒരു ചേരുവകളൊക്കെ കുറവുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ഭക്ഷണം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽനിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഫുഡില്ല അല്ലെങ്കിൽ നമുക്ക് ബിസി ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ ചെയ്യുക കാൾ ചെയ്യുക ജസ്റ്റ് സ്വിഗ്ഗി അല്ലെങ്കിൽ അങ്ങനെയേതെങ്കിലും ഒരു റസ്റ്റോറൻ്റിലൊക്കെ ചെന്നിരുന്ന് കഴിക്കാം അല്ലെങ്കിൽ വിളിച്ച് പറയുക ഇങ്ങനെയൊക്കെയാണ് സാധാരണ വരുന്നത് പക്ഷേ ഉ ഉണ്ടാക്കുക എന്ന് പറയുമ്പം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോറ് ചോറ് നമുക്ക് ഒരു ചേരുവയും വേണ്ട ജസ്റ്റ് അരി മാത്രം മതി പിന്നെ വരുന്നത് നമുക്ക് ചമ്മന്തി ചമ്മന്തി ഒക്കെ അരക്കാൻ അധികം ചേരുവകളൊന്നും വേണ്ട അതേപോലെ തക്കാളി ഉള്ളി വാട്ടുക അതിനും അധികം ചേരുവകൾ വേണ്ട ഏറ്റവും സിംപിൾ ആയിട്ടൊരു കാര്യം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസാണ് ഏറ്റവും കൂടുതൽ സമയം അതായത് ഏറ്റവും കുറവ് ഇതുണ്ടാക്കാൻ ചേരുവകളൊക്കെ കുറവാണെങ്കിൽപ്പോലും നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ ഈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നൂഡിൽസ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഇതിനകത്ത് ഏറ്റവും സമയമില്ലെങ്കിൽ ഞാൻ നൂഡിൽസ് അതേപോലെ പാസ്ത ഇതൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ അതാണ് എനിക്ക് കൂടുതലും എളുപ്പം വരുന്നത്